നമ്മുടെ പ്രാധാനപ്പെട്ട ഹിന്ദുമതത്തിലെ പ്രാധാന ആചാരാനുഷ്ടാനങ്ങളാണ് നമ്മള് ആചരിക്കുന്ന തിരുവാതിരവ്രതം ഏകാദശി വ്രതം ശിവരാത്രിവ്രതം തിങ്കളാഴ്ച്ചവ്രതം പ്രദോഷവ്രതം നവരാത്രിവ്രതം തിരുവാതിര സുമംഗലികളായ സ്ത്രീകളാചരിക്കുന്ന രണ്ടുദിവസത്തെ ആചാരാനുഷ്ടാനങ്ങളാണ് തിരുവാതിര വ്രതം തലേദിവസം മകയിരം നാളില് കുട്ടികള്ക്ക് വേണ്ടിയും തിരുവാതിര തിരുവാതിര നക്ഷത്രത്തില് ഭര്ത്താവിന് വേണ്ടിയിട്ടും എടുക്കുന്ന വ്രതമാണ് ഏകാദശി വ്രതം എന്ന് പറയുന്നത് നമ്മള് ഗുരുവായൂരപ്പന് വേണ്ടിയിട്ട് ആചരിക്കുന്ന ഒരു വ്രതമാണ് ഏകാദശി വ്രതം ശിവരാത്രി വ്രതം എടുക്കുന്നത് ശിവഭഗവാന് വേണ്ടിയിട്ട് നമ്മള് നോക്കുന്ന നോമ്പിനു വേണ്ടിയിട്ടാണ് ശിവരാത്രി വ്രതം എന്ന് പറയുന്നത് തിങ്കളാഴ്ച്ച വ്രതം കൂടുതലായിട്ടെടുക്കുന്നത് സ്വന്തം ഭര്ത്താക്കന്മാര്ക്ക് വേണ്ടിയിട്ട് ആയുസിനും ആരോഗ്യത്തിനും വേണ്ടീട്ടാണ് തിങ്കളാഴ്ച്ച വ്രതം എടുക്കണത് പ്രദോഷ വ്രതം എന്ന് പറയുന്നത് ശിവന്റെ ഇതിൽ വരുന്ന ഒരു പ്രത്യേകതരത്തിലുള്ള ശിവഭഗവാന് വേണ്ടി വരുന്ന പ്രത്യേകതരത്തിലുള്ള ഒരു വ്രതമാണ് പ്രദോഷവ്രതം നവരാത്രിവ്രതം എടുക്കുന്നത് നവരാത്രി നമ്മള് ഒമ്പത് ദിവസമാണ് നവരാത്രി വ്രതം ആഘോഷിക്കുന്നത് ഓരോ ദിവസവും ഓരോ ഭഗവതിക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഓരോ ഒമ്പത് ദിവസവും ഒമ്പത് തരത്തിലുള്ള പ്രതി ഭഗവതിയുടെ രൂപങ്ങളാണ് നമ്മള് കാണുന്നത് അപ്പോൾ അതുപ്രകാരം നവരാത്രി നമ്മള് ഓരോ ദിവസം ഓരോ സങ്കല്പ്പത്തിലാണ് ഭഗവതിയെ കണ്ട് ഓരോ ദിവസം ഓരോ വ്രതം എടുക്കുന്നത്